ബൈക്കിംഗ് എന്നത് മനുഷ്യ ജീവിതങ്ങളിലെ ഏറ്റവും അപകടം പിടിച്ചതും അതുപോലെതന്നെ ഉപകാരപ്രദവുമായൊരു കാര്യമാണ് ബൈക്കിങ്ങെന്നത് മനുഷ്യ ജീവിതത്തിൽ നിത്യോപയോഗ ഉപരി എല്ലാ കാര്യങ്ങളിലും ഉപയോഗിക്കുന്ന ഒന്നാണ് ഡെയ്ലി യൂസിനായിക്കോട്ടെ അതുപോലെതന്നെ എവിടെയെങ്കിലും യാത്ര ചെയ്യുന്നതിലായിക്കോട്ടെ മനുഷ്യൻ്റെ സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ മാറ്റി മനുഷ്യനെ റിലാക്സാക്കുന്നതും ബൈക്കിങ്ങിലൂടെയാണ് അതുപോലെതന്നെ വളരെ അധികം ഏറ്റവും അധികം അപകടങ്ങൾ വരുന്നതും ബൈക്കിങ്ങിലൂടെയാണ് ഹെൽമറ്റ് ധരിക്കാതെയും അതുപോലെതന്നെ അധികമായ ഓവർ സ്പീഡും അതുപോലെതന്നെ എല്ലാ കാര്യങ്ങളിലും ഒരുപാട് ശ്രദ്ധ വേണ്ടൊരു കാര്യമാണ് ബൈക്കിങ് അതുപോലെ മനുഷ്യജീവിതത്തിലെ ഏറ്റവും നല്ലൊരു കാര്യവുമാണ് ബൈക്കിങ് കാരണം എന്താ വെച്ചാൽ നമ്മളെ സ്ട്രെസ്സും കാര്യങ്ങളും നമ്മുടെ ദേഷ്യവും സങ്കടവും ഈഗോയും എല്ലാം ഒരു ബൈക്ക് റൈഡിലൂടെ മാറി നന്നാവുന്നതാണ് ജോലിത്തിരക്കുകളുടെ ഇടയിലും മറ്റ് നിത്യം ഒരു ഫാമിലിയുടെ പ്രശ്നം ഫാമിലി പ്രശ്നവും എല്ലാത്തിൽ നിന്നൊരു റിലാക്സ് ലഭിക്കാനായി ഒരു ബൈക്ക് റൈഡ് പോകുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും